പത്താം ക്ലാസ്സിനു ശേഷം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കു വിദ്യാഭ്യാസത്തിൽ മുൻഗണനകൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു പള്ളി വകയായും മറ്റും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് പഠിത്തത്തിനു ശേഷം വിദ്യാഭ്യാസ രംഗത്തു മാത്രമല്ല ബാക്കിയുള്ള മേഖലകളിലും അവർക്ക് അവരുടേതായ കഴിവു തെളിയിക്കാനായി പാചകം തയ്യൽ അങ്ങനെ വിവിധ മേഖലകളെക്കുറിച്ച് അവർ പഠിക്കുന്നു പത്തിനു ശേഷം എന്തെടുക്കണമെന്നു തീരുമാനിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എന്തെടുക്കണം എന്നതിനേക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നൽകുന്ന ക്ലാസ്സുകൾ ഓരോ ഇടവകയും സംഘടിപ്പിക്കുന്നു അതുപോലെതന്നെ തങ്ങളുടെ കുട്ടികൾ ഏതു വിദ്യാഭ്യാസ രംഗം തിരഞ്ഞെടുക്കണം ഏതു വിദ്യാഭ്യാസ രംഗത്തേക്കാണ് മുൻതൂക്കം കൂടുതൽ എന്നിങ്ങനെ എല്ലാത്തിനേക്കുറിച്ചും ഒരു വിവരം എല്ലാവർക്കും ലഭിക്കുന്നതിനായി ഇപ്പോഴത്തെ തലമുറയ്ക്ക് പല മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത് പണ്ട് എങ്ങനെ പത്തിനു ശേഷം എന്തു ചെയ്യുമെന്നു തീരുമാനിച്ചിരുന്ന തലമുറയുടെ മുന്നിൽ ഇന്നത്തെ ലോകം ഒരുപാട് സാദ്ധ്യതകൾ മുന്നോട്ടു വെക്കുന്നു പത്തിനുശേഷം പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ് പഠിക്കണമെന്നും അവിടെ ഏതു വിഷയം തിരഞ്ഞെടുത്താൽ കൂടുതൽ ജോലി ലഭിക്കുമെന്നും ഏതു വിഷയത്തിലാണ് തങ്ങൾക്കു താത്പര്യമെങ്കിലും അതുതന്നെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയും എല്ലാം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെതന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുൻഗണനകൾ അവർ അവരുടെ ഏതു പഠന പാഠിക പ്രവർത്തനം തിരഞ്ഞെടുക്കണമെന്നു പൂർണ്ണമായും അവരുടെ സ്വാതന്ത്ര്യത്തെ മാത്രം നിലകൊള്ളുന്ന ഒരു ചോദ്യമാണ് അവർക്ക് എന്താണോ ആവശ്യം അതാണവർ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ആരുടെയും നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിനു വഴങ്ങിയോ അവരവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ മുന്നോട്ടു കൊണ്ടുപോകേണ്ടതില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ മുൻഗണകളിലാണ് മുൻഗണനകളാണ് ലഭിക്കുന്നത്